ഞാൻ ഗ്യാസ് തീയിൽ നേരിട്ട് പാചകം ചെയ്തിട്ടുണ്ട് ഗ്യാസിനെയും ഇൻഡക്ഷൻ കുക്കറിനെയും അപേക്ഷിച്ച് ഇത് തീയിൽ ബെറ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കരിഞ്ഞ് തീ കൂടിയാൽ നമുക്ക് പെട്ടന്ന് കുറക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ഇൻഡാ ഇൻഡക്ഷനിൽ ആണെങ്കിലും ഗ്യാസിൽ ആണെങ്കിലും നമുക്ക് സിം മോഡിൽ ആക്കിയാൽ പാചകം ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കരിഞ്ഞ് പോകാണ്ട് കിട്ടും പിന്നെ നമ്മൾ തീയിൽ ആകുമ്പോൾ പെട്ടന്ന് നമുക്ക് ആ തീ ഒന്ന് സിമ്മ് ചെയ്യാനോ ഒന്നും കഴിയില്ല ആ ചൂടിൽ തന്നെ നമ്മൾ അത് കരിഞ്ഞ് പോകാൻ സാധ്യത കൂടുതലും കരിഞ്ഞ് പോയിട്ടുണ്ട് കരിഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് മറ്റേ ഗ്യാസിനെ ഇൻഡക്ഷനിൽ നിന്ന് വ്യത്യാസം അപേക്ഷിച്ചിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഗ്യാസും ഇൻഡക്ഷനും തന്നെയാണ് തീയിൽ നേരിട്ട് പാചകം ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഫ്ലോപ്സേ ഉണ്ടായിട്ടുള്ളൂ പെട്ടന്ന് തന്നെ തീ ആളിപ്പോകുക അല്ലെങ്കിൽ തീ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഓ കത്താതെ ഇരിക്കുക ഒരുപാട് പുക വരുക അങ്ങനെ ബാഡ് ഇതായിട്ട് എനിക്ക് തോന്നിട്ടുള്ളത് ഗ്യാസും ഇൻഡക്ഷനും വന്നത് തന്നെ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു